ഹലോ പോലീസ് സ്റ്റേഷൻ ആ പറഞ്ഞോളൂ ഓക്കേ മാഡം മാഡത്തിൻ്റെ സ്ഥലം എവിടെയായിരുന്നു പുൽപ്പള്ളിയാണല്ലേ ആ അപ്പോൾ എവിടുന്ന് എങ്ങോട്ട് പോയപ്പോഴായിരുന്നു ബസ്സിൽ നിന്നാണോ ആ പ്രൂഫുകളൊക്കെ അതിനകത്തായിരുന്നു അല്ലെ ആ ഓക്കേ മാഡം അപ്പോൾ ബസ്സിൽ നിന്നാണ് സാധനം മിസ്സ് ആയത് ആ ഏതായിരുന്നു മാഡം ബസ് ഇടയൻ ആ ഓക്കേ ഓക്കേ അപ്പോൾ സമയം എപ്പോഴായിരുന്നു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആവാറായി അല്ലേ ഓക്കേ അപ്പം കൂടെ ഇരുന്ന ആൾ കൂടെയാരെങ്കിലും ഇരുന്നയാളെ അങ്ങനെ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ അറിയില്ല അല്ലേ നിങ്ങൾ ബസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടുകഴിഞ്ഞപ്പോൾ അവിടെ ബസ്സുകാരോട് പറയുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ പറഞ്ഞിട്ടില്ല ആ ഓക്കേ ഓക്കേ അവർ അല്ല അപ്പോൾ ബസ്സുകാരോട് ഒന്ന് ചോദിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ വണ്ടിയിൽ നിന്നെങ്ങാനും കിട്ടിയോ ഇല്ലയോ ആ അപ്പോൾ അവർ എന്താണ് പറഞ്ഞത് വണ്ടിക്കകത്ത് ഉണ്ടെങ്കിൽ എടുത്തുവയ്ക്കാം എന്നാണോ പറഞ്ഞത് ആ ഓക്കേ അപ്പോൾ നമുക്കിപ്പോൾ ബസ്സിൽ ആ ടൈം ഒക്കെ വെച്ചു നോക്കുമ്പോൾ യാത്രക്കാരെ എല്ലാവരെയും മിസ്സ് ആയ സ്ഥിതിക്ക് നമുക്കിപ്പോൾ എന്താണ് പറയുക എല്ലാവരോടും ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഒന്ന് അന്വേഷിച്ചുനോക്കാം ആ ഓക്കേ മനസ്സിലാവുന്നുണ്ട് മാഡം അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്തുനോക്കാം ആ പിന്നെ ബസ് ഇടയൻ എന്നല്ലേ പറഞ്ഞത് ആ ഓക്കേ ഓക്കേ അപ്പോൾ ആ ബസ്സുകാരോട് ഞങ്ങൾ ഒന്ന് എന്തായാലും അവരെ ഒന്ന് ക്വസ്റ്റൈൻ ചെയ്തുനോക്കിയിട്ട് ഏകദേശം എന്താണ് സ്ഥിതി എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം മാഡം ഒരു റിട്ടൺ കംപ്ലൈന്റ് ആയിട്ട് വന്ന് ഒന്ന് സൈൻ ചെയ്തുതരാൻ പറ്റുവോ ആ നാളെ മോർണിംഗ് ഒരു പത്ത് മണിയാകുമ്പോൾ വന്നാൽ മതി മാഡം കംപ്ലൈന്റിൽ ഒന്ന് സൈൻ ചെയ്താൽ മതി കംപ്ലയിന്റ് ഒക്കെ ഞാൻ ലെറ്റർ ഇവിടെ എല്ലാം എല്ലാം റെഡി ആക്കിവെച്ചോളാം മാഡം ഒന്ന് വന്നിട്ട് കറക്റ്റ് പറഞ്ഞാൽ മതി ഒന്ന് സൈൻ ചെയ്താൽ മതി ആയിക്കോട്ടെ മാഡം അപ്പോൾ മാഡം ഒന്ന് നാളെ വന്നാൽ മതി കേട്ടോ ആ പേരെന്തായിരുന്നു ആ ഓക്കേ മാഡം